ഹലോ ആ ഹലോ സെൻറ്റ് തോമസ് ഹോട്ടൽ അല്ലേ നമസ്കാരം ആ ഒന്ന് എനിക്കേ ഒരു നല്ല സ്ട്രോംഗ് ചായയും ഒരു എനിക്ക് പാഴ്സല് രണ്ട് മൂന്ന് ബ്രഡ്ഡും ഇച്ചിരി കറിയും കൂടെ എന്ത് കറിയുണ്ടാവും അവിടെ മുട്ടക്കറിയുണ്ടോ ഉവ്വ് ആ എനിക്ക് എനിക്ക് മുട്ടക്കറിയും ബ്രഡ്ഡും കൂടെ ഒരു ബ്രഡ്ഡും മുട്ടക്കറിയും കൂടെ പാഴ്സല് ഒന്നു വീട്ടിലെത്തിക്കണവേ എനിക്കൊരു സ്ട്രോംഗ് ചായയും പിന്നെ ആ കട്ടൻ ആ വീട് നമ്മുടെ വക്കച്ചൻപടി എന്ന് പറയും അതായത് സെൻറ്റ് തോമസ് ഹോസ്പിറ്റലീന്ന് താഴോട്ട് ഇറക്കം ഉള്ളതാണ് വക്കച്ചൻപടി ആ ആ റോഡ്സൈഡി തന്നെയാണെൻ്റെ വീട് അപ്പം അവിടെ ആ അവിടെ ഈ പാഴ്സല് ഇത് കൊണ്ട് വരുവാണെങ്കിലേ ആ വിളിച്ചാൽ ഞാൻ അവിടെ കാണും എന്നെ ഒന്ന് വിളിച്ചാൽ മതി വിളിച്ചിട്ട് ഈ സാധനം കൂടെ കൊണ്ട് വന്ന് അവിടെ വന്ന് കൊണ്ട് തരണവേ പിന്നെ കട്ടൻ ചായ ഉണ്ടാവുമോ അവിടെ കട്ടൻ ചായ ഉണ്ടല്ലേ എനിക്ക് ഇപ്പോൾ അ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പത്തേക്ക് എനിക്ക് ഞാനൊരു അഞ്ച് മണി ആവുമ്പത്തേക്ക് വീട്ടിലെത്തുവേ അപ്പം ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു വീട്ടിലേ അപ്പഴ്ത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് വൈകീട്ടത്തേക്കുള്ള സപ്പർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണേ അപ്പോൾ ഇതെനിക്ക് ഒന്ന് കൊണ്ടുവന്ന് എത്തിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് അവിടേല് ഹോട്ടലിൽ നിങ്ങൾക്കാരെങ്കിലും ഉണ്ടോ റൂം ബോയ് ആരെങ്കിലും നമ്മുടെ ബോയ്മാരുണ്ടോ ഡെലിവറി ആ സാരമില്ല ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പം ഇല്ല ആ ഓട്ടോക്കാരുടെ ആ ഓട്ടോക്കാരുടെ കയ്യിൽ കൊടുത്ത് വിട്ടിട്ട് അവ ലാരുമ ടോമി കാനായിലെന്ന് പറഞ്ഞാൽമതി വീട്ടുപേര് പറഞ്ഞാൽമതിയേ വീട്ടുപേര് പറയുമ്പഴത്തേക്ക് അവർക്ക് മനസ്സിലാകും ഞാൻ വക്കച്ചൻപടിക്ക് തന്നെയാ താമസിക്കുന്നതേ ആ ഓട്ടോ കൂലി കൊടുക്കണോ അവർക്കേ ആ ഓക്കെ ഓക്കെ ഓക്കെ അത് കൊടുക്കണം അല്ലേ ആ അപ്പോൾ എനിക്ക് പാഴ്സല് സാധനം എനിക്ക് ബ്രഡ്ഡും ആ ബ്രഡ്ഡും സ്ട്രോംഗ് ചായയും ഒരു പിന്നെ മൊട്ടക്കറിയായിക്കോട്ടെ മൊട്ടക്കറിയല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ മൊട്ടക്കറി മതി ബീഫൊന്നും ഇല്ലല്ലോ അല്ലേ ബീഫ് കറി ഒന്നും ഇല്ലല്ലോ ബീഫ് കറിയായിട്ടുണ്ടോ ആ എന്നാൽ എന്നാൽ പിന്നെ ബീഫ് കറി മതിയേ ആ ബ്രഡ്ഡും ആ ബീഫ് കറിയും കൂടെ കൂട്ടി ഇങ്ങോട്ട് കൊടുത്ത് വിട്ടാൽമതി പിന്നെ പിന്നെ ആ പിന്നെ വേറെ എന്താ പാഴ്സലുള്ളത് ബ്രഡ്ഡ് അല്ലാതെ വേറെ എന്താ ഉള്ളതേ പൊറോട്ട ഉണ്ടോ ആണോ ആ ആ ഒരു രണ്ട് ഒരു രണ്ട് പൊറോട്ടായും കൂടെ അതിനകത്ത് വെച്ചേരേ രണ്ട് പൊറോട്ടായും ആ വേറെ ഇത് ആ ബ്രഡ്ഡും ബീഫ് കറി മതി ബീഫ് കറി വേറെ വേണ്ട ബീഫ് കറി മാത്രം മതി ഞാൻ വേറെ പ്രത്യേകിച്ചാരും ഇല്ലല്ലോ ഒരു സ്ട്രോംഗ് ചായയും വേണം ഒരു സ്ട്രോംഗ് ചായയും ബ്രഡ്ഡും രണ്ട് പൊറോ അത് പിന്നെ ആ ഒരു പത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ കൊടുത്ത് വിട്ടാലും മതി എങ്കിൽ ഞാൻ അങ് എത്തത്തുള്ളേ ആ ഓട്ടോക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടാൽമതി ഞാൻ പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ കൊടുത്ത് വിടുവോ ബില്ലും കൂടെ കൊടുത്ത് വിട്ടാൽമതി എന്നിട്ട് ഞാൻ തന്നെ ഓട്ടോക്കാരൻ ആ ഓട്ടോക്കാരൻ്റെ കയ്യിൽ തന്നെ ആ പൈസ ആ പൈസയും കൊടുത്ത് വിടാവേ ഞാനൊരു പത്ത് മിനിറ്റും കൂടെ വൈകി എത്തത്തുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ ആ കുരിശുമൂട്ടി നിക്കുന്നതേ ഉള്ളേ കുരിശുമൂട്ടിൽനിന്ന് ഞാൻ അങ്ങോട്ട് ആ വക്കച്ചൻപടിക്കൽ ഞാൻ അപ്പോഴത്തേക്കും പെട്ടെന്ന് കൊടുത്ത് വിടാനായിട്ട് പറ്റുമല്ലോ അല്ലേ അതെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ